ഇന്ത്യയിലെ കലാകാരന്മാർക്ക് മതിയായ പ്രാധാന്യം ഇന്ന് നൽകുന്നില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറെക്കുറെ അതിലൊരു സത്യമുണ്ട് ഈ താഴ്ന്നുനില്ക്കുന്ന മിഡിൽ ക്ലാസ്സിലുള്ള ഒരു സം കൂട്ടം ജനങ്ങളെ ഇന്നും അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു ഘടന നമ്മള് കണ്ടുവരുന്നുണ്ട് അത് കൂടുതലും ഈ സ്പോർട്സുകളിലാണ് കലാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതലും അത് കണ്ടുവരുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണെന്ന് വെച്ചാല് ഇപ്പോള് നമ്മള് നമ്മള് ടാലൻറ് ഉള്ളവരെ മാറ്റിനിർത്തി അതിനുപരി ഈ ക്യാഷ് കൊണ്ട് കയറുന്ന ആൾക്കാരെ നമ്മള് പല രീതികളില് നമ്മള് കണ്ടിട്ടുണ്ട് അങ്ങനെയൊരു രീതിയില് ആൾക്കാര് ക്യാഷ് എന്നൊരു കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ഇന്ന് ഈ കലാപരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ടുപോകുന്നതും പണ്ടുമുതലേ അതുണ്ടെങ്കിലും ഇപ്പോള് ആളുകൾ കുറച്ചുകൂടെ മെച്ച്യൂഡായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഇന്ന് ഈ ഒരു സമൂഹത്തിലെ കലാകാരന്മാർക്കുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നത്